പണ്ടുകാലം തൊട്ടേ ഇന്ത്യ മെഡിക്കൽ ഫീൽഡിൽ എപ്പോഴും മുന്നോട്ടു നിൽക്കുന്ന ഒരേയൊരു രാജ്യമാണ് സുഷാരുത്ത് എന്ന അദ്ദേഹമാണ് നമ്മുടെ ആദ്യമായിട്ട് സർജറി തന്നെ കണ്ടുപിടിച്ചത് അദ്ദേഹത്തിനെ പറയുന്നത് സർജറികളുടെ പിതാവ് എന്നാണ് അദ്ദേഹമാണ് പ്ലാസ്റ്റിക് സർജറിയും ഓപ്പൺ തലാമിക് സർജറി ഒക്കെ കണ്ടുപിടിച്ചത് അപ്പോൾ അങ്ങനെയിരിക്കേ ഇപ്പോഴത്തെ മെഡിക്കൽ ഫീൽഡിന്റെ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത രീതിയിലാണ് ഈയിടെ ആയിട്ട് വന്നതാണ് റോബോട്ടിക് സർജറിയും പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള ടെലി മെഡിസിൻ പിന്നെ ത്രീ ഡി പ്രിന്റിങ് ആൻ്റ് ഇന്നോവേറ്റീവ് വൂണ്ട് കെയർ ഡിവൈസ് ഒക്കെ പിന്നെ നമ്മളെ ആദ്യത്തെ റോബോട്ടിക് റോബോട്ടിക് സർജറിയും വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ നമ്മള് ഒരുപാട് മുന്നോട്ട് എത്തിക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡ് വളർന്നു വന്നിട്ടുള്ളത് അതേപോലെ ഈ കോവിഡ് സമയത്തിലെ കോവിൻ ആപ്പ് ഈ ആപ്പ് ഉപയോഗിച്ച് ആപ്പ് ഉപയോഗിക്കുന്നതുമൂലം നമുക്കൊരുപാട് നല്ല ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു ആപ്പായിരുന്നു രജിസ്ട്രേഷൻ ചെയ്യാനും അതുപോലെ അപ്പോയിൻമെന്റ് അപ്പോയിൻമെന്റ് എടുക്കാനും പിന്നെ അപ്പോയിൻമെന്റ് എടുത്ത് നമുക്കിപ്പോൾ ഷെഡ്യൂള് ചെയ്യണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാനും പിന്നെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യാനും ഇപ്പോൾ വാക്സിൻ വാക്സിനേഷൻ പിന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നെ ഈ ആപ്പിൽ നമുക്ക് കിട്ടും അതുപോലെ നമ്മള് നമ്മള് എത്ര പേര് വാക്സിനെടുത്തു അത് എല്ലാ മെമ്പേഴ്സിന്റെയും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും ഇത് ഈ ആപ്പിൽ തന്നെ നമുക്ക് അവൈലബിളായിട്ടുണ്ടാവും ഈ സമയത്ത് ഈ ആപ്പ് കൊണ്ടുവന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരവും എളുപ്പവും ആക്കി മാറ്റി നമ്മുടെ ജീവിതശൈലിയെ തന്നെ കുറച്ചുകൂടി എളുപ്പം ആക്കി മാറ്റി ഇത് ഈ സമയത്ത് ഇങ്ങനെ ഒരു ആപ്പ് രൂപീകരിച്ചത് നമ്മുടെ നമുക്ക് ഏറ്റവും ഉപകാരമായിട്ട് എനിക്ക് തോന്നി